തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കില് ഒരുപാട് കാര്യങ്ങള് പറയുവാനുണ്ട് ഇവിടെ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചതുതന്നെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം തിരുവനന്തപുരമെന്ന് പേര് വരാൻതന്നെ കാരണം അനന്തൻ ഇവിടെ സ്ഥിതിചെയ്യുന്നതുകൊണ്ടാണ് അനന്തൻ്റെ പുറത്ത് പള്ളികൊള്ളുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രങ്ങളുടെ നാടെന്നുതന്നെ വേണെങ്കില് പറയാം ശ്രീകണ്ഠേശ്വരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ശംഖുമുഖം ദേവീക്ഷേത്രം കരിക്കകം ക്ഷേത്രം ഇങ്ങനെ ഇപ്പോള് പുതുതായിട്ട് നിർമിച്ച ഒരു പ്രതിമയോടുകൂടിയുള്ള ഒരു ശിവലിംഗ ക്ഷേത്രമുണ്ട് ആഴിമല ശിവലിംഗം ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങള് തിരുവനന്തപുരത്ത് ഉണ്ട് കോവളം ബീച്ച് നെയ്യാർ ഡാം ഇങ്ങനെ നമ്മുടെ കാഴ്ച ബംഗ്ലാവ് കുതിരമാളിക ഇതൊക്കെ അതില് എടുത്തുപറയത്തക്ക കേന്ദ്രങ്ങളാണ് പിന്നെ പറയുവാണെങ്കില് നമ്മുടെ പാർലമെൻ്റ് മന്ദിരം ഭരണസിരാകേന്ദ്രമായ സെക്രട്ടറിയേറ്റ് അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസ് ഇതൊക്കെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ് നക്ഷത്രബംഗ്ലാവും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് പിന്നെ സ്റ്റാച്യൂസിൻ്റെ നാടാണ് തിരുവനന്തപുരമെന്ന് പറയുമ്പോള് വേലുത്തമ്പിദളവാ പിന്നെ രാമയ്യൻ ദളവാ പിന്നെ കവികളായ കുമാരനാശാൻ വള്ളത്തോൾ സ്വാതന്ത്ര്യസമരത്തിനുവേണ്ടി പോരാടിയ അക്കമ്മച്ചെറിയാൻ പട്ടം താണുപിള്ള ഇവരുടെയൊക്കെ പ്രതിമ സ്ഥിതിചെയ്യുന്ന നാട് നമ്മുടെ തിരുവനന്തപുരമാണ് സ്റ്റാച്യൂ എന്ന് പ്രധാന ഒരു സ്ഥലത്തിനു പേരു വന്നതുതന്നെ അവിടെ സ്റ്റാച്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലും നോക്കിയാലും സാധനങ്ങള് വാങ്ങാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് പഴയ രാജഭരണകാലത്ത്തൊട്ടേ ഉണ്ടായിരുന്ന ശാല അതിന്ന് ചാലെ മാർക്കറ്റ് എന്നുള്ള പേരില് പ്രസിദ്ധമായിരിക്കുന്നു പിന്നെ പാളയത്ത് കണ്ണിമ്മാറ മാർക്കറ്റ് ചരിത്രപ്രസിദ്ധമായ മാർക്കറ്റാണ് പാളയം പിന്നെ ഇപ്പോള് ആധുനികമായിട്ടും ഒരുപാട് ഷോപ്പിംഗ് മാളൊക്കെ പിന്നെ നമ്മുടെ എൻ എച്ച് ഫോർട്ടിസെവൻ്റെ തീരത്തായിട്ട് സമീപത്തായിട്ട് കെട്ടിയുയർത്തപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടും തിരുവനന്തപുരത്ത് താമസിക്കുമ്പോള് മറ്റ് സ്ഥലങ്ങളില് പോകണമെന്നുള്ള തോന്നലൊന്നുമില്ല എല്ലാത്തിൻ്റെയും ഒരു നിറവ് തന്നെയാണ് തിരുവനന്തപുരം അതുകൊണ്ട് ഇവിടെ താമസിക്കുക ഇവിടങ്ങ് ജീവിച്ചുപോരുക ഏത് തൊഴിലും ചെയ്തു ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം അതുകൊണ്ടാണ് അന്യദേശത്തുനിന്നുപോലും തമിഴ്നാട് പശ്ചിമബംഗാള് അവിടെനിന്നുപോലും തൊഴിലാളികള് ഇവിടെയെത്തി അവർക്കുള്ള ജീവിതമാർഗം കണ്ടുപിടിച്ച് ജീവിക്കുന്നത് എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ തിരുവനന്തപുരം